ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് അതുപോലെ യൂട്യൂബ് ഇതൊക്കെയാണ് സ്മാർട്ട് ഫോണുകളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് സ്മാർട്ട് ഫോണുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഫോണിൽ കൂടി അറിയാൻ കഴി പറ്റുന്നുണ്ട് അതുപോലെ ഒരാളെ പെട്ടെന്ന് കാണാതായാൽ നമുക്കീ ഫോൺ വെച്ച് അതിൻ്റെ ട്രാക് ചെയ്ത് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് അവർ പോയ വഴികളും പലതും കാണാൻ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ ഇതിനെ കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ സ്മാ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുട്ടികളത് പല തരത്തിലുള്ള മോശമായ വീഡിയോസുകൾ കാണാനും അതുപോലെ തന്നെ അവർ പല തരത്തിലുള്ള പിക്ചറുകൾ എടുത്ത് അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിട്ട് അതിനെ ഫോട്ടോ വേറൊരു രീതിയിലാക്കി മാറ്റാനും അവർ സാധിക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും സ്മാർട്ട് ഫോണിന് ഇന്നുണ്ട്